എനിക്ക് എനിക്ക് എൻ്റെയൊരു ആഗ്രഹം ഞാൻ പറയാം എൻ്റെ വ്യക്തിപരമായ ആഗ്രഹമാണ് ഞാൻ ഈ പണ്ടൊക്കെ ഓരോ വീട്ടിലും ഓരോ ചെടികൾ ഇപ്പോൾ വേണ്ട നമ്മുടെ മാങ്ങാപ്പഴോം ചാമ്പയ്ക്ക പേരയ്ക്ക ഇതൊക്കെയാണല്ലോ പണ്ട് പണ്ടുകാലത്ത് വീട്ടിലുണ്ടായിരുന്നത് ഇപ്പോഴൊക്കെയാണ് ചെടികളുടെക്കെ മാറ്റം ചെടികളൊക്കെ വേറെ വേറെ ചെടികൾ വന്നത് അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഞങ്ങൾ അടുത്ത വീട്ടിലൊക്കെ പോയി ചോദിക്കും ചിലപ്പോൾ അവർക്ക് തരാൻ മടി ആയിരിക്കും കേട്ടോ അപ്പോൾ ചിലപ്പോൾ തരില്ല പുഴുവാണ് പിന്നെ അവിടുത്തെ അച്ഛൻ വരട്ടെ എന്നിട്ട് ഇതാക്കാം അല്ലെങ്കിൽ മാമൻ വരട്ടെ അങ്ങനെയൊക്കെയായിരുന്നു പറയുക അതു അത് കേട്ട് വളർന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇവിടെ നമ്മൾ നോക്കുന്നത് ഓരോ വർഷം പിന്നെ എങ്കിലും നമ്മൾ ഡ്രസ്സ് എടുക്കുന്നപോലെ എങ്കിലും ഞാൻ ഓരോ ഫ്രൂട്ട്സിൻ്റെ തൈ വയ്ക്കാറുണ്ട് നമുക്കിവിടെ റമ്പുട്ടാൻ ഉണ്ട് മാങ്കോസ്റ്റിൻ ഉണ്ട് പിന്നെ ചെറുനാരങ്ങയുണ്ട് സപ്പോർട്ട ഉണ്ട് സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട് പിന്നെ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട് ബട്ടർ ഫ്രൂട്ട് ഉണ്ട് പിന്നെ അതേപോലെതന്നെ എഗ്ഗ് ഫ്രൂട്ട് ഉണ്ട് എല്ലാം വച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുക അതൊക്കെ അതിലിപ്പോൾ നമുക്ക് ഇത് റമ്പൂട്ടാൻ കായ്ച്ചിട്ടുണ്ട് അതേപോലെതന്നെ സപ്പോട്ട പേരയ്ക്ക കായ്ച്ചിട്ടുണ്ട് ഇത് ഇത് ബട്ടർ ഫ്രൂട്ട് കായ്ച്ചിട്ടുണ്ട് അതേപോലെതന്നെ രണ്ട് തരത്തിലുള്ള പേഷൻ ഫ്രൂട്ട് ഉണ്ട് മഞ്ഞയും ഉണ്ട് ചുവപ്പും ഉണ്ട് രണ്ടും കായ്ച്ചിട്ടുണ്ട് നമുക്ക് കായ്ക്കാത്തതായിട്ടുള്ളത് മാങ്കോസ്റ്റിൻ ആണ് കായ്ക്കാത്തയായിട്ടുള്ളത് മിറാക്കിൾ ഫ്രൂട്ട് കായ്ച്ചിട്ടുണ്ട് അതേപോലെതന്നെ സ്റ്റാർ ഫ്രൂട്ടും കായ്ച്ചു നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കായ് കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ കായ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്താ പറയുക അത് അത് ഉണ്ടാവുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഓ അവർ അപ്പോൾ നമ്മുടെ വീട്ടിൽ അവർ വന്നു ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷമാണ് പച്ചക്കറി നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനെ ഉള്ളൂ തക്കാളി പച്ചമുളക് ക്യാബേജ് വഴുതനങ്ങ ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ പിന്നെ ഈ നേഴ്സറിയിലൊക്കെ പോയിട്ട് തൈ വാങ്ങിച്ചൊക്കെ നടുന്നതാണ് അപ്പോൾ നമുക്ക് അതേപോലെതന്നെ കുറേ പയർ വർഗ്ഗത്തിലേയ്ക്കുള്ള പയറുകളൊക്കെയുണ്ട് അപ്പോൾ നാശമായി പോവില്ല പയറൊക്കെ നമുക്ക് കുറേക്കാലം ഈട് നിൽക്കും മറ്റേ എന്താ പറയുക വള്ളിപ്പയർ എന്നുപറഞ്ഞാൽ കുറേ പിന്നെ നിത്യ വഴുതനങ്ങ ഉണ്ട് അതൊക്കെയാണ് ഇവിടെ തോരൻ വയ്ക്കാൻ ഒക്കെ നമുക്ക് നമ്മുടെ തൊടിയിൽത്തന്നെ ഇറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും